ഇന്ത്യയിലേറ്റവും ആരാധകരുള്ള കളിയെന്നു പറയുമ്പോൾ ക്രിക്കറ്റായിരിക്കും ക്രിക്കറ്റ് ഫുട് ബോൾ ഇതായിരിക്കും കൂടുതൽ പിന്നെ കുറെ കളിയുണ്ട് ഹോക്കി ക്രിക്കറ്റ് ഹോക്കി ഫുട് ബോൾ വോളി ബോൾ ബാഡ്മിൻറ്റൺ അങ്ങനെയുള്ള കുറെ കളികളുണ്ട് എന്നാലും ഇന്ത്യയിൽ ആരാധകരുള്ളതെന്ന് പറയുമ്പോൾ ക്രിക്കറ്റാണ് അപ്പോൾ ക്രിക്കറ്റെന്നു പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛനെയൊക്കെ ആണെങ്കിൽ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഇരുന്ന് ലൈവ് കളി ഐ പി എസ് അങ്ങനെ എന്തെങ്കിലും ഇരുന്നു കാണും അമ്മയും അച്ഛനും വഴക്കായിരിക്കും പോയി കിടന്നുറങ്ങാൻ അപ്പോഴത്രയും ഒരു എല്ലാവരും ഈ മുതിർന്നവർ തൊട്ട് കൊച്ചുകുട്ടികൾ വരെ ഈ ഗെയിംസ് ഗെയിംസ് കാര്യങ്ങൾ കൂടുതൽ ഇൻവോൾവാകുകയാണ് അതുപോലെ ഫുട് ബോൾ ഫുട് ബോളും ഫുട് ബോൾ ഞാൻ കളിക്കാൻ പോണാ എന്നു വെച്ചാൽ ഇവിടെ വൈകിയിട്ട് സ്കൂളുവിട്ട് അഞ്ചരയ്ക്കു ശേഷം ഗ്രൗണ്ടിൽ വന്നതാണ് ഫുട് ബോൾ കളിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഞാൻ എനിക്ക് ഫുട് ബോൾ കളിക്കുമ്പോളുണ്ടാകുന്ന അനുഭവം എന്നു പറഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റാണ് നേരമ്പോക്കിനു വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത് പക്ഷേ അവർ കളിക്കുമ്പോൾ അവരുടെ പാഷൻ അതാണ് അങ്ങനെയാണ് അവർ കളിക്കുന്നത് പക്ഷേ നമ്മളൊരു ഇത് നേരമ്പോക്കിനു മാത്രം കളിക്കുന്ന ഒരു സാധനമാണ് ഈ ഫുട് ബോളും ക്രിക്കറ്റും പക്ഷേ അവരവരുടെ ജോലിയാണത് അവർക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല

അപ്പോഴവർ അതിനു വേണ്ടി വന്നവരാണ് അവരതിനു വേണ്ടി ഇറങ്ങിയേക്കുന്നവരാണ് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ ബാഡ്മിൻറ്റൺ ഞാൻ കളിക്കും ബാഡ്മിൻറ്റൺ ഇവിടെ ഞായറാഴ്ചയായിരിക്കും കൂടുതൽ കളിക്കുന്നത് ഞായറാഴ്ച കളിക്കും ഞായറാഴ്ച ഞായറാഴ്ച നമ്മൾ ഇവിടെ കുറച്ച് പിള്ളേരുണ്ട് പിള്ളേരും നമ്മളുമായിട്ട് രാത്രി രാത്രി അല്ല രാത്രിയും കളിക്കാറുണ്ട് രാത്രി ബാഡ്മിൻറ്റൺ കളിക്കാറുണ്ട് പിന്നേ പിന്നെ നമ്മൾ ഈ ക്രിക്കറ്റ് ഫുട് ബോൾ അങ്ങനെയല്ലാതെ പിന്നമ്മൾ ഒളിച്ചു കളിക്കാറുണ്ട് കേട്ടോ ഒളിച്ച് തൊട്ടു കളി അതൊക്കെ കുറച്ചു കൂടി നമുക്ക് സന്തോഷമാണ് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ